ശബ്ദത്തിൻ്റെ ക്ഷീണവും അല്ലെങ്കിൽ ഇടർച്ചയുമൊക്കെ നമ്മൾ പാടുന്ന പാട്ടുകൾക്ക് കൂട്തൽ എഫെക്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പാട്ടിനെ ഏറ്റവും ഇഷ്ട്ടപ്പെടുന്ന ഒരാളാണ് പാട്ട് പാടാനും ഇഷ്ടമാണെങ്കിലും അത് പാട്ടിൻ്റെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ പാട്ട് എങ്ങനെ ഒരു നല്ല രീതിയിലോട്ട് പാടാനൊന്നും എനിക്കറിയില്ല എങ്കിലും പുതു തലമുറയിലെ എല്ലാ കുട്ടികളേയും പോലെ തന്നെ കേൾക്കുന്ന പാട്ടുകൾ പഠിക്കുവാനും പാട്ടുകൾ കേൾക്കുവാനും വളരെ ഇഷ്ട്ടമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഇതിൽ നമുക്ക് പാട്ട് പഠിക്കുവാനും എന്ന് വച്ചാൽ പാടാത്ത ആൾക്ക് പാട്ട് പാടുവാൻ വരെ കഴിയാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കുറേ ടിപ്പ് എന്ന് വച്ചാൽ പൊടിക്കൈകളൊക്കെ ഇന്നുണ്ട് എങ്കിൽ എനിക്ക് അറിയാവുന്ന രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് പാട്ട് പാടി പാടി പാടി കൂടുതൽ പാട്ടുകൾ പാടി പാടി പാടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു പാടുന്ന ആൾക്കാരുടെ ആ ഒരു അത്ര എത്താൻ പറ്റില്ലെങ്കിലും കുറച്ച് ഒരു നമുക്ക് വളരെ മോശമല്ലാത്ത രീതിയിലൊക്കെ പാടി പഠിച്ച് നമക്ക് ശരിയാക്കാമെന്ന് തോന്നുന്നു പിന്നെ ശബ്ദത്തെ സംരക്ഷിക്കാനായിട്ട് ചൂട് വെള്ളം കുടിക്കുന്നതും പിന്നെ സാഗതം ചെയ്യുന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ചൂട് വെള്ളം കുടിക്കുന്ന ആ ഒരു സംഭവം ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഈ സാഗർണം ചെയ്യുക അങ്ങനെ ഉള്ള വളരെ എന്ന് വച്ചാൽ ഇത് പ്രൊഫഷൻ ആയിട്ട് ഒരു ജോലി ആയിട്ട് അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ഇഷ്ടമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർകൊക്കെ ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ നന്നായിട്ട് പാട്ടിനെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടുതൽ എന്ന് വച്ചാൽ കൂടുതൽ പാടി പാടി ഇങ്ങനെ ഈ ശരീരത്തിന് ക്ഷീണം വരുത്താതെ അല്ലെങ്കിൽ സൗണ്ടിൽ പ്രശ്നം വരാണ്ട് നമ്മൾ ആ ഒരു എന്താണ് പറയുക റസ്റ്റ് ഒക്കെ കൊടുത്ത് പരമാവധി സമയമൊക്കെ എടുത്ത് നല്ല രീതിയിൽ എന്താണ് ഭയങ്കര എന്താണ് കോൺഫിഡൻ്റായിട്ട് ഒരു പാടുന്ന ആ ഒരു രീതി കുറെ ഈ ഇടർച്ചയൊക്കെ ഒരു വിധം ഇല്ലാതാക്കാൻ നമ്മൾ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ് കൂടുതൽ അറിവുകളൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ